ഞങ്ങളുടെ പ്രദേശത്ത് പൊതുവേ ഗതാഗത സൗകര്യം ഉണ്ട് എങ്കില്പ്പോലും ബസ്സുകളുടെ കുറച്ചുകൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതിന് ബസ്സ് സൗകര്യം കുറച്ച് കുറവാണ് ചിലപ്പോള് ഒരു മണിക്കൂര് രണ്ടു മണിക്കൂര് ഇടവിട്ടൊക്കെ ആയിരിക്കും ബസ്സ് ഉണ്ടാവുക അപ്പോള് ബസ്സുകള് കൂടുതൽ കുറച്ചുകൂടെ സർവീസ് നടത്തണമെന്ന് എനിക്കൊരു താൽപ്പര്യമുണ്ട് ഒരൂ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഇടത്തോട്ടും ബസ്സുകള് പിന്നേ വെയ്റ്റിംഗ് ഷെഡ്ഡുകള് ഇവിടെ വളരെ കുറവാണ് വെയ്റ്റിംഗ് ഷെഡ്ഡുകള് വേണമെന്ന് ഞാൻ പറയുന്നുണ്ട് പിന്നേ ന്നെ പിന്നെ എല്ലാവരും ഇപ്പോള് സ്വന്തം വണ്ടി ഉള്ളവരായതുകൊണ്ട് പൊതുവെ ആരും ബസ്സിനെ കൂടുതല് ആശ്രയിക്കുന്നില്ല എന്നാല്പ്പോലും സാധാരണക്കാര് സാധാരണക്കാര് ഇന്നും ബസ്സുകളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോള് കൂടതൽ ബസ്സ് സൗകര്യം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇപ്പോള് ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ കൂടുതൽ കൂടുതല് വണ്ടികള് വിപണിയിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു